ആംബുലൻസ് കൃത്യ സമയം എത്താൻ കഴിയാതെ കുറെ മറ്റേ ആശുപത്രിയിൽ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റാതെ ഇന്ന് ആ രോഗിയുടെ നില ഗുരുതരമാകുകയും പിന്നെ ആ രോഗികൾ മരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ ആംബുലൻസിന് കൃത്യ സമയത്ത് എത്തിക്കാൻ കഴിയാത്തതിന് പ്രധാനായിട്ട് ഉള്ള കാരണം റോഡുകളുടെ ബ്ലോക്കും തകരാറുകളും ഒക്കെയാണ് പിന്നെ തകരാറുകൾ ഒക്കെയാണ് തകർന്ന തകർന്ന റോട്ടിൽ കൂടെ ആ അമിതമായ വേഗത്തില് ആംബുലൻസ്കൾക്ക് ഓൾ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആംബുലൻസ് അല്ലെങ്കിൽ കൃത്യ സമയത്ത് ആശുപത്രിയിലും മറ്റും എത്തിക്കാൻ കഴിയാതെ ആകുന്നത് അതുപോലെ തന്നെ ഒരു ഇപ്പം ആംബുലൻസിൽ തന്നെ കുട്ടികൾ സ്ത്രീകള് പ്രസവിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഈ റോട്ടില് കുഴികളിലും മറ്റും വീണിട്ടുണ്ടാകുന്ന കാര്യങ്ങള് വഴിയാണ് പിന്നെ കൃത്യമായിട്ടുള്ള സർവീസ് നടത്താൻ പറ്റാത്ത ഇടങ്ങളും റോഡുകളും മറ്റും ഇല്ലാത്ത പ്രദേശങ്ങളിൽ ആംബുലൻസുകാർക്ക് എത്താൻ കഴിയാതെ രോഗികളുടെ ഒക്കെ ആരോഗ്യ സ്ഥിതിയൊക്കെ മോശമാകുന്നതൊക്കെയുണ്ട് ഇന്ന് റോഡുകളുടെ പ്രശ്നം മൂലമാണ് പ്രധാനമായിട്ട് ആംബുലൻസുകൾക്ക് കൃത്യ സമയത്ത് എത്തിക്കാനും മറ്റ് സർവീസ് നടത്താനുമൊക്കെ കഴിയാതെ വരുന്നത് കഴിയാതെ വരുമ്പോൾ